പോലീസ് സ്റ്റേഷനല്ലേ ഞാന് മേഴ്സി ആണേ പോലീസ് സ്റ്റേഷനല്ലേ ആ ഒരു കംപ്ലയിന്റ് പറയാനായിട്ടായിരുന്നേ ആ ഞാന് വീട്ടിലോട്ട് പോകുന്ന വഴിയിലെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്കും അല്ലെങ്കിൽ ഉ വൈകുന്നേരങ്ങളൊക്കെ പോകുന്ന സമയത്തെ നമുക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ നമ്മള് വഴിയില് നേരിടാറുണ്ടെ അതൊന്ന് പറയാനായിട്ടായിരുന്നെ വിളിച്ചതെ ചുങ്കപ്പാറ സിറ്റി അടുത്തായിട്ടാണ് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകണം ആ ഇച്ചിരി അങ്ങോട്ടേക്ക് കയറി പോകാനെ അപ്പോൾ അവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മദ്യപിച്ചും മറ്റു ഇതൊക്കെയാണല്ലോ ഇന്നത്തെ ആൾക്കാരുടെ ഓരോ രീതികളെ അപ്പം നമ്മള് ഒറ്റയ്ക്കും ഒക്കെ പോകുന്ന സമയങ്ങളില് എപ്പഴും നമ്മെ അത് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടേ അപ്പോൾ നമുക്ക് ആ ഒരു രണ്ടു മൂന്നു പേരൊക്കെ ആയിരിക്കും മിക്കവാറും കാണുന്നത് കൂടുതലും സ്ഥിരമായിട്ട് തന്നെ ഇങ്ങനെ ലാൻഡിയ്യുന്നവരായിരിക്കാവേ ചെല സ്റ്റേഷനുകളൊണ്ടല്ലോ ആൾക്കാര് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന ഇടവേ ഞാൻ ഈ ആ ഇങ്ങനെ കാണുവല്ലോ തൊഴിലുകൊണ്ട് ഇല്ലാത്ത രീതിയിൽ നടക്കുന്നത് ഉണ്ടല്ലോ ഒരു പണിയും ഇല്ലാതെ ഈ നാട്ടിൽ ഉള്ളവരായിരിക്കാം പക്ഷെ അധികം ഡീറ്റൈൽസ് നമുക്ക് അറിയില്ല കാരണം നമ്മള് എപ്പോഴും നമ്മളുടെ കാര്യം നോക്കി ശ്രദ്ധിച്ച് പോകുന്നത് കാണാം അങ്ങനെയുള്ളവർ ഇതിന് മെനക്കെടാറില്ലല്ലോ മിക്കവാറും ഉച്ച വൈകുന്നേരം ഉള്ള സമയത്താണ് നമുക്ക് ഈ കൂടുതലും ബുദ്ധിമുട്ട് ഉണ്ടാകാറുള്ളത് ആ ആ ഒരു സമസന്ധ്യയോടു കൂടി ആ അതെ അപ്പോൾ നമക്ക് അത് ഒത്തിരി മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന കാരണം നമ്മള് എപ്പോഴും നമ്മള് നമ്മടെ കാര്യം നോക്കി പോകുന്നു നമ്മുടെ അനുദിന ആ ആവശ്യങ്ങൾക്ക് നമ്മള് പോകുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാം മറ്റുളളവരും ഈ വഴിയേ പോകണ്ടതല്ലേ അവർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആരും ആ തീർച്ചയായിട്ടും തരാം തരാം സാർ ആ മറ്റെ ആൾക്കാരോട് കൂടെ പറഞ്ഞ് അവരുടെ സൈനൂടെ ഒക്കെ മേടിച്ച് അപ്പോൾ അത് ഇച്ചിരി പ്രാബല്യം ആകുമല്ലൊ അത് അ അത് ഞാൻ അന്വേഷിക്കാം ചോദിക്കാം ആൾക്കാരോട് ആരേലും ഒക്കെ അറിയുന്ന ഇപ്പോൾ എനിക്ക് അറിയില്ലേലും മറ്റുള്ളവര് അറിയുന്നവരായിരിക്കാം അപ്പോൾ അത് എങ്ങനെ ചെയ്തിരുന്നേൽ ഒത്തിരി ഉപകാരമായിരുന്നു കാരണം ആ അതെ